മലയാള സിനിമയിൽ പൊതുവെ ആഹ് നൃത്തത്തെപ്പറ്റി ഒക്കെ പറയുകയയാണെങ്കിൽ പണ്ട് എന്ന് പറയുമ്പോൾ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു ഫിലിമൊക്കെ ഉണ്ടായിരുന്നു അതിൽ നാഗവല്ലി എന്ന് പറയുന്നൊരു കഥാപാത്രം നിർത്തകി ആയിട്ടാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ആ ഒരു ക്യാരക്ടർ ചെയ്തത് ശോഭനയാണ് അതിൽ നൃത്തം ഒക്കെ കാഴ്ച്ച വെച്ചത് അപ്പോൾ അതിൽ നർത്തകിയായിട്ടാണ് ഒരു സീനൊക്കെയുള്ളത് പിന്നെ ആഹ് വേറെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാളത്തിൽ നർത്തകിയായിട്ട് ദേവാസുരം എന്ന് പറയുന്ന സിനിമയിൽ ഒക്കെ നൃത്തത്തെ പറ്റി നല്ലോണം പരാമർശിക്കുന്നുണ്ട് അതിലെ നായികയും നല്ലൊരു നൃത്ത കഥാപാത്രമായിട്ടാണ് ചിത്രീകരിച്ചിട്ട് ഉള്ളത് പിന്നെ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഷാരൂഖ് ഖാൻ അങ്ങനെ ദീപിക പദുക്കോൺ അങ്ങനത്തെ ചില ആൾക്കാരൊക്കെയാണ് നൃത്തം കാഴ്ച വെക്കുന്നത് പിന്നെ മലയാളത്തിൽ തന്നെ വിനീത് എന്ന് പറയുന്നൊരു നടനൊക്കെ ഭയങ്കര നൃത്തത്തിന് വല്ലാണ്ട് സ്വാധീനിക്കുന്നൊരു നൃത്തത്തെ സ്വാധീനിച്ച് മുന്നോട്ട് പോവുന്നൊരു വ്യക്തിയാണ് പിന്നെ നൃത്തത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പകുതി ആൾക്കാരും ചൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കൂടുതലും ഇങ്ങനെ അടിച്ചുപൊളി ഗാനങ്ങളൊക്കെയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ എന്ന് പറയുമ്പോൾ ഇപ്പം ഇപ്പം മറ്റേ മധുരരാജ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഉള്ള മോഹമുന്തിരി വാറ്റിയ രാവ് അങ്ങനത്തെ പാട്ടുകൾ ഒക്കെയാണ് കൂടുതലും ആൾക്കാർ ചൂസ് ചെയുന്നത് ഓൾഡ് ടൈപ്പ് സോങ്ങുകളൊന്നും അങ്ങനെ ആർക്കും ഇപ്പോൾ ഡാൻസിനോട് അങ്ങനെ വലിയ ഇത് തോന്നില്ല പിന്നെ തമിഴ് ഗാനങ്ങൾ ആണ് കൂടുതലും ആൾക്കാർക്ക് ഇപ്പോൾ ഡാൻസൊക്കെ കളിയ്ക്കാൻ ആണെങ്കിൽ കൂടുതലും താല്പര്യം വരുന്നത് അങ്ങനത്തെ കൂടുതലും ഗാനങ്ങളൊക്കെ തമിഴിലേക്കാണ് നോക്കുന്നത് കാരണം അടിച്ചുപൊളിയുടെ മറ്റേ എന്താ പറയുക വിജയിന്റെ ഒക്കെ സോങ്ങുകളാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടമായിട്ട് വരുന്നത് ഇപ്പോൾ പിന്നെ നൃത്തത്തിനൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൃത്തത്തിന് വേണ്ടി ഇപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്ന സോങ്ങുകൾ കൂടുതലും അങ്ങനെ എന്താ പറയുക ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ എന്താ പറയുക തമിഴിൽ തന്നെ ഒരുപാട് ഗാനങ്ങൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്